നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് രാഷ്ട്രീയം എന്നു പറയുന്നത് ഷ അവിടെ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ മൂന്നു പാർട്ടിക്കാരാണ് കൂടുതൽ പ് മത്സരത്തിലേക്ക് ഇറങ്ങാറുള്ളതും ഒന്ന് കോൺഗ്രസ് പാർട്ടി രണ്ടാമത് സി പി എം മൂന്നാമത് ബി ജെ പി ഈ കാലഘട്ടത്തിൽ ഈ രണ്ടാ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാർക്ക് ഒര് സീറ്റ് മാത്രമാണ് ലഭ്യമായത് ഇതുവരെ കിട്ടാത്ത ഇതുവരെ ഉണ്ടാകാത്ത ഒരു നേട്ടം അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇവിടെ ഒരു കോൺഗ്രസ് മണ്ഡലമായിട്ടു തന്നെ പണ്ടു കാലം മുതലെ നിലനിൽക്കുന്നെ ഒന്നാണ് പത്തനംതിട്ട ഈ പ്രാവശ്യവും പത്തനംതിട്ടയിൽ നാലാം പ്രാവശ്യം ആൻറ്റോ ആൻ്റണി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തിരിക്കയാണ് രണ്ടാം സ്ഥാനത്തു വന്നത് സി പി എംകാരാണ് സി പി എംകാരുടെ പ്രവർത്തനം ആളുകൾക്ക് തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് ഇത്രയും വോട്ട് ലഭിക്കാൻ കാരണം മൂന്നാമത് ബി ജെ പി പത്തനംതിട്ടയിലെ ബി ജെ പിക്ക് മൂന്നാം സ്ഥാനമാണെങ്കിലും എ കെ ആൻ്റണിയുടെ മകൻ എന്ന നിലയിലായതു കൊണ്ടാണ് ഇത്രയും വോട്ടെങ്കിലും ലഭിച്ചത് ഇല്ലെങ്കിൽ ഇതും കിട്ടുവാൻ സാദ്ധ്യതയില്ലായിരുന്നു ഇതാണ് എനിക്ക് ഇവിടുത്തെ എന്തുവാ പറയുന്നത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്